ജീവിതത്തിൽ കലക്കുള്ള പ്രാധാന്യം വളരെ വലുതാണ് ഇന്നത്തെ കാലത്തെ കലയ്ക്ക് ഇന്നത്തെ കാലത്തെ കലയ്ക്കും കള്ളും കഞ്ചാവും അടിച്ച് നടക്കുന്നതും അതിനേക്കാൾ എത്രയോ നല്ലതാണ് കലകൾ അഭ്യസിക്കുന്നത് പ്രധാനമായും നൃത്തം പാട്ട് വയലിൻ വീണ എന്നിവ ഒക്കെയാണ് കലകളിൽ ഉൾപ്പെടുന്നത് കലകൾ പല തരത്തിലുണ്ട്